കർഷകർക്ക് ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ കർഷകർക്ക് പച്ചക്കറിയെല്ലാം ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ കാലാവസ്ഥ ഈ പ്രതീക്ഷിക്കാതെ മഴ വരുമ്പോഴും കാലാവസ്ഥ വേനലിലും കർഷ പച്ചക്കറിയെല്ലാം നശിച്ച് പോകുന്നു അതിൽ കുറേ നഷ്ടങ്ങളെല്ലാം വരുന്നു അതുകൊണ്ട് പിന്നെ നമുക്കത് വിചാരിച്ചത് പോലത്തെ ലാഭം അതിൽ കിട്ടുന്നില്ല പക്ഷേ പാവപ്പെട്ടവർ കുറേ കഷ്ടപ്പെട്ടാണ് പച്ചക്കറിയെല്ലാം ഉണ്ടാക്കുന്നത് അതിൽ നമുക്ക് എന്തെങ്കിലും ലാഭം കിട്ടാൻ വേണ്ടിയല്ലേ നമ്മൾ ചെയ്യുന്നത് ഒരു ലാഭവും നമുക്കതിൽ കിട്ടുന്നില്ല പച്ചക്കറിയെല്ലാം നട്ടു കൃഷി നെല്ല് ഇതെല്ലാം ചെയ്തപ്പോൾ പിന്നെ മഴ വന്നെങ്കിലും അതെല്ലാം പോയി കർഷകർക്ക് സഹായം കിട്ടാതെ കുറേ കർഷകർ പാവപ്പെട്ടവർ ജീവിതം തന്നെ അവസാനിച്ചിട്ടുണ്ട് ബുദ്ധിമുട്ട് കാരണം എങ്ങനെ കൃഷി ചെയ്യണം എന്ന് അവർക്കറിയുന്നില്ല ഇപ്പോളത്തെ കാലത്ത് കൃഷി ചെയ്യണമെങ്കിൽ അത്രതന്നെ ബുദ്ധിമുട്ടുണ്ട് അതായത് ചെയ്തെങ്കിലും അതിനൊരു ലാഭമോ ഇല്ല കൃഷി സ്ഥ കൃഷിയിടങ്ങളിൽ സ്ഥലം നല്ലത് വേണം കൃഷി ചെയ്യാൻ നമുക്ക് നല്ല ഒരു ഇത് വേണം അപ്പം അവർക്ക് പ്രതീക്ഷിച്ചത്ര ധനസഹായം കിട്ടുന്നുമില്ല ഗവർണ്മെന്റ് കൊടുക്കാമെന്ന് പറഞ്ഞ പൈസയെല്ലാം അവർക്കിപ്പോൾ ശരിക്ക് ഇപ്പോൾ കിട്ടുന്നുമില്ല കടം വാങ്ങി കർഷകർ ഓരോന്ന് ചെയ്തിട്ടാവുമ്പോൾ പിന്നെ അത് അവരെ സമയമാവുമ്പോൾ അവർക്കത് ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിൽ അവർക്ക് പിന്നെ ഇപ്പം ജീവിതം തന്നെ അവസാനിപ്പിക്കുന്നു എല്ലാ കർഷകൾക്കും അതാണ് ഒരിത് ധനസഹായം കിട്ടുമെന്ന പ്രതീക്ഷയിൽ അവർ ഓരോന്ന് ചെയ്യുന്നു പക്ഷേ അതൊന്നും ചെയ്യാൻ അവർക്ക് ആവുന്നില്ല ഇനിയും മുന്നോട്ട് പോവണമെങ്കിൽ സഹായം കിട്ടിയേ തീരൂ അതുകൊണ്ട് അവർക്ക് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല കാലാവസ്ഥ ചൂടിലും വെ വെ ചൂടുകാലത്ത് അത് ചെയ്യാനും പറ്റുന്നില്ല കർഷകർക്ക് ചൂടിലും മഴയത്തും എന്ത് ചെയ്യണം എന്നറിയാതെ അവർ വിഷമിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് ഏത് ഇത് ചെയ്യാൻ വിചാരിച്ചാലും അത് സാധിക്കുന്നില്ല പച്ചക്കറി വിത്ത് നട്ടാൽ അത് അതുപോലെ വിളയിച്ചില്ലെങ്കിൽ സാധനം എല്ലാം നഷ്ടപ്പെടും അതിനെന്തെങ്കിലും പ്രതീക്ഷ ഉണ്ടെങ്കിൽ അത് അവർക്ക് വിചാരിച്ചത് പോലെ ഒന്നും കിട്ടുന്നില്ല എങ്കിൽ അത് നമ്മൾ ചെയ്യുന്നത് വെറുതെ ആയിരിക്കും അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ട് നല്ല രീതിയിൽ അത് മുന്നോട്ട് വിളവെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല അതാണ് ഓരോരോ കർഷകർ ജീവിതം തന്നെ അവസാനിപ്പിക്കുന്നത് വിചാരിച്ചതിലും നല്ലവണ്ണം കഷ്ടടമുണ്ട് പച്ചക്കറി ഉണ്ടാക്കാനും അതിനെ നട്ട് വളർത്താനും അതിന് വെള്ളം നനയ്ക്കാനും എല്ലാം കുറേ കഷ്ടടമുണ്ട് ജീവിതം ഓരോരോ ആളെ ജീവിതമാർഗ്ഗം അതായതുകൊണ്ട് അവർ അതിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇനിയും ഇനിയും മുന്നോട്ട് പോവണമെങ്കിൽ നല്ല കാലാവസ്ഥയും നല്ലൊരു അന്തരീക്ഷവും ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ഇതൊക്കെ ചെയ്യാൻ പറ്റുവത്രെ അല്ലാത്തപക്ഷം കർഷകർക്ക് നല്ലവണ്ണം ബുദ്ധിമുട്ടാണ് സഹായം ലഭിക്കാൻ ഗവർണ്മെന്റ് ഇതാക്കിയെങ്കിലും പിന്നെ അത് തരാം തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മുന്നോട്ട് നീങ്ങി കളിക്കും ആർക്കും വിചാരിക്കുന്നത് പോലെ പൈസ കിട്ടുന്നില്ല അതുകൊണ്ടാണ് കർഷകർ ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടിലേക്ക് വരുന്നത് പണ്ട് പണ്ടുള്ള കാലങ്ങളിൽ കർഷകർ നല്ലവണ്ണം അധ്വാനിച്ചിട്ട് ജീ ഇല്ല ജീവിതമാണ് ഇപ്പോളത്തെ കാലത്തെങ്കിൽ അങ്ങനെ അധ്വാനിക്കുന്നവർ ആരുമില്ല കർഷകർ പച്ചക്കറി നടാനും കൃഷിയായാലും ഏത് കാര്യത്തിലായാലും അവർ ഇല്ല നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നെങ്കിൽ മഴ വന്ന് കഴിഞ്ഞെങ്കിൽ അതെല്ലാം ചീഞ്ഞ് അളിഞ്ഞ് അത് പോവും അപ്പം അതിനെ കൊണ്ടുള്ള ലാഭം ഇല്ല ഇപ്പം അരിക്കായാലും എല്ലാം കഷ്ടം തന്നെ പിന്നെ കണ്ടത്തിലായാലും കൃഷി നട്ട് കഴിഞ്ഞെങ്കിൽ മഴ വന്ന് കഴിഞ്ഞെങ്കിൽ അതും പോയി പിന്നെ ചീര നടാൻ ഈ സമയത്തെല്ലാം ചീര നടുന്ന കാലമാണ് അപ്പോൾ പക്ഷേ വെള്ളമില്ലെങ്കിൽ അതെല്ലാം നശിച്ച് പോകുന്നു കർഷകർക്ക് അവർ ഒരു ഏക്കർ സ്ഥലം വാങ്ങിച്ച് കർഷകർ അതിൻ്റെ ഉൽപാദനം തുടങ്ങിയിട്ട് അത് ചെയ്ത് അതുപോലെ വിജയിച്ചില്ലെങ്കിൽ അവർക്ക് നഷ്ടം വരുന്നു അപ്പം ഇങ്ങനെയുള്ള സഹായം കിട്ടിയില്ലെങ്കിൽ അവർക്ക് ഭയങ്കര വിഷമം വിഷമഘട്ടത്തിൽ ഇങ്ങനെ ഒന്ന് ചിന്തിക്കുമ്പോൾ ആണ് അവർ ആത്മഹത്യയെക്കുറിച്ചെല്ലാം ചിന്തിക്കുന്നത് ഇപ്പം നമ്മൾ വിചാരിച്ചതുപോലെ സാധിക്കണമെങ്കിൽ കാലാവസ്ഥയും അതിന് തക്കത്ത സാഹചര്യവും എല്ലാം കൃഷിക്ക് അനുകൂലമായെങ്കിൽ മാത്രമേ നമുക്കൊരു കൃഷി ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതായെങ്കിൽ നമ്മൾ നശിച്ച് തന്നെ പോകും കൃഷി കണ്ടത്തിലായാൽ കൺ വെള്ളം കിട്ടാതെ കൃഷി കുറേ നശിച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ മഴ വന്ന് കഴിഞ്ഞെങ്കിൽ അതും ബുദ്ധിമുട്ട് പിന്നെ എങ്ങനെ നോക്കിയാലും കൃഷിയെ നോക്കി നടത്തി ചെയ്യാനേ പറ്റുവത്രെ ഏതൊരു എല്ലാ കാലാവസ്ഥയിലും കൃഷി ചെയ്യാം അതുപോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാ സാഹചര്യത്തിലും കൃഷി നട്ട് വളർത്താൻ നമുക്ക് കഴിയൂ ചിപ്പ് സാധാരണയുള്ള ചെറുകിട സഹായദർക്ക് സഹായം കിട്ടിയില്ലെങ്കിൽ അവർ പിന്നെ എന്ത് ചെയ്യും അവർക്ക് ഇതൊരു കൃഷി സംബന്ധമായിട്ട് രീതിയിൽ ഏതൊരു സ സഹായവും കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ അവർ പിന്നെ ഈ സാഹചര്യം മതിയാക്കും കൃഷിയില്ലായെങ്കിൽ ഇനിയും മുന്നോട്ട് മുന്നോട്ട് നമുക്ക് പോകാൻ നമുക്ക് കഴിയില്ല കൃഷിയും ഇതെല്ലാം ഉണ്ടെങ്കിലേ നമുക്ക് എല്ലാത്തിനും മുന്നോട്ട് പോവാൻ ജീവിതം തന്നെ മുന്നോട്ട് പോവാൻ ആവൂ അത്രെ ജീവിത കർഷകർക്ക് ഒരു തൊഴിലും അതില്ലാതാവുന്നത് ഈ ധനസഹായം ഇല്ല എന്നായെങ്കിൽ കർഷകർ പോലത്തെ ജീവിതമാർഗ്ഗം മുന്നോട്ട് പോവാൻ കഴിയില്ല അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പറയുന്നത് ഇനിയും ഇനിയും കർഷകരും അതുപോലത്തെ ഇങ്ങനത്തെ തൊഴിലും ഉണ്ടെങ്കിൽ കൃഷി ചെയ്യാനുള്ള ആൾക്കാരും ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് നമുക്ക് പോവാൻ കഴിയുള്ളൂ ഏത് കൃഷിക്കായാലും അതിൻറേതായ ഗുണം വേണമെങ്കിൽ അതിനായി വളവും അതും ഇതും വെള്ളവും എല്ലാം കൊടുത്ത് വേണം ഏത് കൃഷിയായാലും അത് നോക്കാൻ കർഷകർക്ക് ഏതൊരു കാലാവസ്ഥയിലും കർഷകരുടെ ജീവിതം കഷ്ടം തന്നെ ഇപ്പോഴത്തെ കാ ഇപ്പോൾ ഇപ്പൊഴാണെങ്കിൽ ചൂടുകാലം വരുന്നു അതിൻ്റെ ഇടയിൽ മഴയും വരുന്നു എ അതിനൊരു തണുപ്പ് കൂടുതൽ തണുപ്പുള്ള കാലത്ത് ചൂട് ചൂടുള്ള കാലത്ത് തണുപ്പ് അങ്ങനെയുള്ള കാലാവസ്ഥ അവസ്ഥയാണ് ഇപ്പോളത്തെ കാ സാഹചര്യം അതുകൊണ്ട് എങ്ങനെ കർഷകർക്ക് കൃഷിയുമായി മുന്നോട്ട് പോവാൻ പറ്റുമെന്ന് തന്നെ വളരെ സങ്കടകരമായ കാര്യമാണ് ഏ അത് അതുപോലത്തെ വെള്ളമായാലും കാലാവസ്ഥയുടെ ഇതായാലും നല്ല സൗകര്യത്തോടുകൂടി കിട്ടുന്നതാണെങ്കിൽ നല്ല സൗകര്യം ഉണ്ടാകും സാഹചര്യം അനുകൂലമായിരിക്കും ഇപ്പം ഇനിയുള്ള കാലങ്ങളിൽ ഇനി മുന്നോട്ട് മുന്നോട്ട് പോവുമ്പോൾ ആരും ഈ കൃഷീന് ഉപയോഗിക്കാൻ തുടങ്ങാനും ആരും ഉണ്ടാവില്ല ഇനി വളരുന്ന കാലഘട്ടത്തിൽ മുമ്പത്തെ കാലഘട്ടത്തിലെങ്കിൽ അത് തന്നെ കർഷകത്തിൽ കണ്ടത്തിൽ പോയി ജീവിച്ചിട്ട് കൃഷി ഉണ്ടാക്കിയിട്ട് അതുകൊണ്ട് വന്ന് തിന്നിട്ട് വേണം ദിവസം കഴിയാൻ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ലല്ലോ കൃഷിയും അതൊന്നും ഇതൊന്നും ചെയ്യാനുള്ള ആൾക്കാർ ഇപ്പോഴില്ല നാട്ടിൽ ഇനി ഇനി പുതു ത് ജീവിതം വരുമ്പോൾ കുറേ കാലഘട്ടം മാറ്റം വരും ഇപ്പോൾ ഇപ്പോഴുള്ള കർഷകർക്ക് അതിൻ്റെ ധനസഹായവും ഗവർണ്മെന്റ് അംഗീകൃത അതാത് സമയത്ത് കൊടുത്ത് കഴിഞ്ഞിരുന്നെങ്കിൽ എല്ലാം ഭംഗിയായിട്ട് നടക്കും